ഹലോ ഹലോ അത് ഏ എങ്ങനെ ആ ഓക്കെ എങ്ങനെ ക്ലിയർ ഇല്ല ആ അതെ കൊടുക്കുന്നുണ്ട് ആ അതെ കൊടുക്കുന്നുണ്ട് ആ അതെ അതെ ആ ഡെലിവറി ചെയ്യും ഡെലിവറി ചെയ്യും ആ അതെ എന്ത് പരിപാടി ആ എത്ര ആൾക്കുള്ളതാണ് ഭക്ഷണം എത്ര ആൾക്കുള്ള വെജിറ്റബിൾ വേണം

നൂറ്റി അൻപതോ ആ ഓക്കെ ഓക്കെ അല്ല എല്ലാ വെജിറ്റബിളും ഉണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വാഡ്സ്ആപ്പിൽ അയച്ച് തന്നാൽ മതി ആ ഓക്കെ

ആ അതെ അതെ ആ ആ ആ ഇല്ല ഇല്ല അത് ഒരു സ്ഥലത്തെ ഉള്ളു ഞങ്ങൾ ആ അതെ ഫ്രഷ് ആണ് ഒരു കുഴപ്പവും ആ

ആ ഫ്രഷ് ആണ് ഒരു കുഴപ്പവും ഇല്ല ആ അതെ ഓക്കെ ആ മണ്ണാർക്കാട് എവിടെ ആണ് വരുന്നത് ആ ഓക്കെ എന്താണ് ചെയ്യുന്നത് ഡെലിവറി ആക്കുകയാണോ അതോ നിങ്ങൾ വന്ന് മേടിക്കുമോ ആ ഓക്കെ എന്നാൽ ഡെലിവറി ചെയ്യാം ഡെലിവറി ചെയ്യാം ആ ആ നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾ അ പറഞ്ഞിട്ട് ആ ആ ഞാൻ ആ നിങ്ങൾ വാഡ്സ്ആപ്പ് അയച്ച് തന്നാൽ മതി ഞാൻ എമൗണ്ട് അയച്ച് ഡെലിവറിൻ്റെ ഒക്കെ എമൗണ്ട് അയച്ചു തരാം വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് അയച്ച് തന്നാൽ മതി ഓക്കെ നൂറ്റി അൻപത് ആൾക്കാർക്ക് അല്ലേ ആ ഓക്കെ ഓക്കെ ആ ശരി താങ്ക്യൂ